ജീവിതത്തിന് എന്താണ് ഏറ്റവും കൂടുതൽ വില കൽപിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹം പണം ആത്മാർത്ഥത സത്യസന്ധത ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വില കല്പിക്കുന്നത് കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ ജീവിതം ഒന്നും ആവുന്നില്ല സത്യസന്ധത ആത്മാർത്ഥത സ്നേഹം ഇതൊക്കെ ഉണ്ടങ്കിൽ ഒരു കുടുംബ ജീവിതത്തില് മുഖ്യം അതാണ് പക്ഷേ അതേപോലെത്തന്നെ ഇമ്പോർട്ടൻ്റാണ് നമുക്ക് പണത്തിനും പണം ഇല്ലെങ്കിൽ നമ്മുക്കൊന്നും വാങ്ങാനോ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റില്ല ഇപ്പോൾ എല്ലാം നമ്മുടെ ജീവിതത്തില് എല്ലാത്തിനും എല്ലാത്തിനും കുറച്ച് അതിൻ്റേതായ പ്രാധാന്യം കൽപ്പിച്ച് മൂന്നോട്ട് പോവുക അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതിന് അർഹിക്കുന്നുണ്ട് നമ്മളെ ജീവിതത്തിന് എന്തിനാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒക്കെത്തന്നെ അല്ലാതെ ഇപ്പോഴെന്താ അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നുമല്ല ഒന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ എല്ലാം വേണമല്ലോ